വിദ്യാസമ്പന്നനായ ഒരാൾ തത്വങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് നല്ല പെരുമാറ്റമുള്ളയാളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും അതിനോട് യോജിക്കാൻ സാധിക്കുകയില്ല സമൂഹത്തില് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വിദ്യാസമ്പന്നരായ ആളുകള് സമൂഹത്തിലെ വ്യക്തികൾക്ക് മാതൃകയാകേണ്ട ആളുകൾ ചില സമയത്ത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തത്വങ്ങളും കാഴ്ചപ്പാടുകളും ദുർവിനിയോഗം നടത്തുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ വിവേകവും പഠിപ്പുമുണ്ട് ഒരു മനുഷ്യനെന്ന് അദ്ദേഹത്തിന് എത്ര ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കേറ്റും ഉണ്ടെങ്കിൽപ്പോലും സമൂഹത്തില് ഒരു നല്ല കാഴ്ചപ്പാട് നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെ തങ്ങൾ തെരഞ്ഞെടുത്ത് പത്തും പതിനഞ്ചും വർഷം വരെയായിട്ടും എട്ടും പത്തും വർഷമൊക്കെ പഠിച്ച് നേടുന്ന ഒരു ജോലിയോടുള്ള ആത്മാർത്ഥതയില് മറ്റുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആരംഭിക്കുന്ന സംരംഭങ്ങൾ പോലും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ പോലും തങ്ങളുടെ പ്രവർത്തികൾ ദുർവിനിയോഗം ചെയ്യുന്നതായിക്കാണാം ഡോക്ടർമാരാണെങ്കില് ആതുര സേവനമെന്ന് പറഞ്ഞ് രംഗത്ത് ഓടിയെത്തുന്നവരാണ് പക്ഷേ അവരുടെ പഠനം കഴിയുമ്പോൾ തങ്ങളുടെ സ്വത്തുസമ്പാദനത്തിന് വേണ്ടി തങ്ങളുടെ ജോലി മറ്റുള്ളവർക്ക് മുന്നില് അടിയറവ് വെയ്ക്കുന്നതായി കാണുന്നു ആ സ്വത്തിനോടുള്ള ആ അതിയായ ആഗ്രഹം മുഖാന്തരം അവർ തന്നെ തങ്ങളുടെ ജോലിയിലൂടെ അതിയായ സമ്പത്ത് സമ്പാദിക്കുന്നതിനും സമൂഹത്തെ കൊള്ളയടിക്കുന്നതിനുമായി അവർ വിനിയോഗം ചെയ്യുന്നതായും കാണാം അതുകൊണ്ട് ഒരിക്കലും ഒരു വിദ്യാസമ്പന്നന് അതുപോലെ തന്നെ സാമൂഹിക കാഴ്ചപ്പാടുകളിലൂടെയുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് നല്ല സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ബാങ്കുകൾ സാധാരണയായി തുടങ്ങുന്നത് ബാങ്കിലുള്ളവര് ബാങ്കിനുള്ളില് തന്നെ ഇന്നത്തെ ഒരവസ്ഥ വളരെ ശോചനീയമാണ് കുറേ കഷ്ടപ്പെട്ട് ജനങ്ങൾ തങ്ങളുടെ നിക്ഷേപങ്ങൾ കൊണ്ടിട്ടുകഴിയുമ്പോള് അവിടെയും വലിയൊരു കൊള്ളയാണ് നടക്കുന്നത് അതുകൊണ്ട് വിദ്യാസമ്പന്നൻ വലിയ സമൂഹത്തിന് വലിയൊരു കാഴ്ചപ്പാട് നൽകിയാൽ അതൊരു അധ പതിച്ചൊരു കാലഘട്ടത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും വിദ്യാസമ്പന്നൻ ഓരോ തത്വങ്ങൾ പാലിക്കുന്നയാളാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല സമൂഹത്തില് ഒരുപാട് രീതിയിലുള്ള ഒരുപാട് ഉദാഹരണങ്ങള് ഇന്ന് സമൂഹത്തിൻ്റെയടുത്ത് കാണിക്കാന് പുതു തലമുറയ്ക്ക് സാധിക്കും അതുകൊണ്ട് പുതു തലമുറകളിൽപ്പോലും വഴിവിട്ട ഒരു സമൂഹത്തോടൊരു പ്രതിബദ്ധതയുമില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് തത്വങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ ശ്രമിക്കേണ്ടത് തത്വങ്ങൾ മനസ്സിലാക്കി പഠനങ്ങൾക്ക് വിധേയമായ വിദ്യാസമ്പന്നനാണെങ്കിൽ അത് സമൂഹത്തെ അന്ധകാരത്തിലേക്ക് നയിക്കുകയല്ല ചെയ്യേണ്ടത് അസതോ മാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ എന്ന ആപ്തവാക്യം മുന്നിർത്തി തങ്ങൾക്ക് ലഭിക്കുന്ന അറിവിലൂടെ സമൂഹത്തിലെ മറ്റുള്ളവരുടെ ഉന്നതിക്കും കാഴ്ചപ്പാടിൻ്റെ വളർച്ചയ്ക്കും മറ്റും വലിയൊരു ഉയർച്ചയിലേക്കും വലിയൊരു പങ്ക് വഹിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ വിദ്യാസമ്പന്നത എന്നതുകൊണ്ട് വേറുമൊരു അന്ധകാരം സൃഷ്ടിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ഒരു തത്ത്വ ചിന്തകളിൽ പോലും പറയുന്നത് ഇതുതന്നെയാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽപ്പോലും വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് അന്ധൻ അന്ധനെ നയിച്ചുകഴിഞ്ഞാൽ അത് അന്ധകാരത്തിലെ സോറി വെളിച്ചം മുഴുവൻ നയിക്കുന്നത് അന്ധകാരത്തിലേക്കായിരിക്കരുത് കണ്ണിന് കാഴ്ചയുള്ളവൻ നയിക്കുന്നത് അന്ധകാരത്തിലേക്കായിരിക്കരുത് പകരം അവൻ നയിക്കേണ്ടതൊരു സമൂഹത്തെ വെളിച്ചത്തിലേക്കായിരിക്കും നന്മയുടെ ലോകത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ കൈപിടിച്ചുയർത്തുവാനായിട്ട് അവന് സാധിക്കണം എങ്കിൽ മാത്രമേ വിദ്യാസമ്പന്നന് സമൂഹത്തിന്റെ ഉന്നതിക്ക് കാരണമാകുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അരാജകത്വങ്ങൾ ഒഴിവാക്കി സമൂഹത്തെ ബോധവാന്മാരാക്കുന്നതും തങ്ങളുടെ പ്രവർത്തിപഥങ്ങൾ കൊണ്ടും കർമ്മപഥങ്ങൾ കൊണ്ടും സമൂഹത്തിൽ ഒരു വലിയൊരു വെളിച്ചം നൽകുവാൻ സാധിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ വിദ്യാസമ്പന്നർക്ക് സാധിച്ചെങ്കിൽ മാത്രമേ അവര് സമൂഹത്തില് അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് സമൂഹത്തിന് വലിയൊരു വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ വിദ്യാസമ്പന്നൻ തത്വങ്ങൾ പാലിക്കുന്ന ഒരു നല്ലയാളാകണമെങ്കിൽ അവർ കർമ്മമണ്ഡലങ്ങൾ കൊണ്ട് പ്രവര്ത്തിപഥങ്ങളിലൂടെ മാത്രം തെളിയിച്ചെങ്കിൽ മാത്രമേ അത് സ്വീകാര്യമായ ഒരു പ്രവർത്തനമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വിദ്യാസമ്പന്നര് സമൂഹത്തിന് കാഴ്ചപ്പാടുകൾ നൽകാനുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാകട്ടെയെന്ന് ഓർമ്മപ്പെടുത്തുന്നു